ഈ പൗരന്മാർ അതായത് യുവാക്കളെ നമ്മൾ സംരക്ഷിക്കേണ്ടത് എങ്ങനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അവരെ പറഞ്ഞു തിരുത്താൻ പറ്റില്ല അപ്പം നമ്മൾ ചെയ്യേണ്ടത് ചെറിയ പ്രായം ഒരു അഞ്ചിലൊക്കെ എത്തുമ്പം അഞ്ച് നാലാം ക്ലാസൊക്കെ എത്തുമ്പം കൊച്ചുങ്ങൾക്ക് അത്യാവശ്യം വിവരോം ബോധമൊക്കെയുള്ള സമയമാണ് അപ്പോൾ ആൺകുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യണം ക്ലാസുകളിൽ അല്ലെങ്കിൽ സ്കൂളുകളിൽ നമുക്ക് അവർക്ക് ഒരു സെമിനാറോ അല്ലെങ്കിലൊരു ക്ലാസോ കൊടുക്കാം സ്ത്രീകളെ ബഹുമാനിക്കുക ഇപ്പോൾ കൂടി വരുന്നത് എത്രയോ സ്ത്രീകളെ അവരെ പ്രായം നോക്കാതെ പിച്ചിച്ചീന്തുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരാൻ കാരണം ഇവരിൽ അതായത് ലഹരിയുടെ ഉപയോഗം മദ്യം മയക്കുമരുന്ന് ഹാൻസ് റാഡിഷ് അങ്ങനെ കുറേ മയക്കു അവർക്ക് കിട്ടുന്ന കുറേ കുറേ സുലഭമായി കിട്ടുന്ന കുറേ സാധനങ്ങളുണ്ട് മയക്കുമരുന്ന് അപ്പം ഇതിന് അഡിക്റ്റ് ആയിട്ടുള്ള യുവാക്കളിലാണ് കൂടുതൽ ഇങ്ങനത്തെ പ്രവണത കാണുന്നത് അപ്പോൾ നമ്മൾ വരും തലമുറയെ നല്ല രീതിയിൽ വാർത്തെടുക്കുകയാണെങ്കിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കണം അല്ലാതെ അവസാന നിമിഷം പോയി അവരെ നന്നാക്കാൻ നിൽക്കരുത് അപ്പോൾ നമ്മൾ അതിനുവേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാ പിന്നെ നല്ല നല്ല ക്ലാസുകൾ കൊടുക്കുക അവരെ എല്ലാ അതായത് നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും തുല്യരാണ് അപ്പോൾ ഈ ഇങ്ങനത്തെ ഇത് ചെയ്യ്ത് ഇങ്ങനെ പോലുള്ള ഓരോ ഉപയോഗം കാരണം നമ്മളെ എന്താ പറയാ നമ്മളെ നശിച്ച് പോയ്ക്കോണ്ടിരിക്കാണ് നമ്മൾ ദൈവം നമുക്ക് ഓരോ ജീവൻ നൽകുമ്പോൾ അവർക്ക് ഓരോ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് ഈ ഭൂമിയിൽ അത് നിർവഹിക്കാതെ പിന്നെ ആഡംബര വാഹനം ഉപയോഗിച്ച് ലഹരി ഉപയോഗിച്ച് എത്രയോ യുവാക്കൾ മരിക്കുന്നു

പിന്നെ എന്തൊക്കെ രീതിയിൽ മരിച്ചിട്ടുണ്ട് പിന്നെ വിനോദസഞ്ചാരത്തിനു പോയി ഇങ്ങനെ കുറേ ഉപയോഗത്തിൻ്റെ മൂലമാണ് അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കീം കണ്ടും അതൊക്കെ തിരുത്താൻ നോക്കണം ആ നിയമവ്യവസ്ഥയിലെക്കുറിച്ച് നിയമത്തെക്കുറിച്ചും നമ്മുടെ സമൂഹത്തിന് സംരക്ഷിക്കേണ്ട അവരാണ് ഏതൊരു വ്യക്തിയും അമ്മയിൽ നിന്നോ സഹോദരി ഒക്കെ ഉള്ളവരാണ് അപ്പോൾ അവരെയൊക്കെ പറഞ്ഞു മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടേതാണെന്ന ചിന്തയോടെ നമ്മൾ ചെറുപ്പത്തിൽത്തന്നെ അവരെ പറഞ്ഞു തിരുത്താൻ നോക്കണം പറഞ്ഞു തിരുത്തി നല്ല നല്ല ക്ലാസു കൊടുത്ത് നല്ല പൗരന്മാരാക്കി വാർത്തെടുക്കാൻ ശ്രമിക്കണം